തീർച്ചയായും ഇന്ന് വൈദ്യുതി ഇല്ലാതെ ഒരു ജോലിയും നടക്കില്ലാത്തതിനാൽ തന്നെ ഉപജീവനമാർഗ്ഗം തീർച്ചയായും വൈദ്യുതിയെ ആശ്രയിച്ചു കൊണ്ട് തന്നെയാണ് വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് അത് നല്ല പോലെ ബാധിക്കും ചെയ്യേണ്ട തീർക്കേണ്ട ജോലികളൊക്കെ ഭയങ്കരമായിട്ട് സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വൈദ്യുതി മുടങ്ങുനെ വെളിച്ചത്തിനുള്ള മറ്റു വഴികൾ എന്തൊക്കെ എന്നു ചോദിച്ചാൽ ഇൻവെട്ര് എല്ലാ വീടുകളിലും ഇല്ല അതിനാൽ തന്നെ കറണ്ട് വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ആകെയുള്ള ഒരു വഴി അതിനാൽ തന്നെ വൈദ്യുതി മുടങ്ങുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായി തന്നെ ഇന്ന് നോക്കി കാണുന്നത് പിന്നെ വെളിച്ചമൊക്കെ പോയിക്കഴിഞ്ഞാൽ ആകെ മെഴുക് തിരിയിൽ നിന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പം അല്ലെങ്കിൽ ഇൻവേർട്ടറ് നിർബന്ധമാണ് അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റുകൾ എമർജൻസി ലൈറ്റുകൾ പോലത്തെ ലൈറ്റുകളാണ് എന്നിരുന്നാലും കരണ്ട് നിർബന്ധാണ്